അതേ എന്തായിരുന്നു

ആ അവിടെ ആളുണ്ടയിരുന്നോ

ആ ഞാനിപ്പോൾ വരാം പിന്നെ നിങ്ങൾ രാത്രി സൗണ്ട് എന്തെങ്കിലും കേട്ടിരുന്നോ

ആ വീട്ടിലത്തേ പട്ടി ആയിരുന്നോ അത് അത് ഗേറ്റും മതിലും ഒക്കേ ഉള്ള വീടാണ് ആ വല്ലാ ഗേറ്റ് തുറന്നിട്ടാണോ രാത്രി ഉണ്ടായിരുന്നത്

അപ്പോൾ ഏതായിരുന്നു സ്ഥലം

എന്നാൽ ശരി